ഹലോ അക്ബർ ട്രാവൽസ് അല്ലേ ഞാൻ രാജീവാണ് ഞാൻ സ്ഥിരമായി വിദേശയാത്ര ചെയ്യുന്നൊരാളാണ് അടുത്താഴ്ച എനിക്ക് യു എസിലേക്കൊരു ബിസിനസ് ട്രിപ്പുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിനിടയില് എൻ്റെ പാസ്പോർട്ടിൻ്റെ പേജുകളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ആ യാത്രക്ക് മുമ്പേ അടിയന്തരമായിട്ട് എനിക്ക് ഈ പാസ്പോർട്ട് പുതുക്കേണ്ടതുണ്ട് അതിന് താങ്കളുടെ സഹായമാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോള് ഈ ഫോണ് വിളിച്ചത് നിങ്ങളുടെ ട്രാവൽ ഏജൻസി സന്ദർശിച്ചിട്ട് എനിക്ക് പാസ്പോർട്ട് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം വേഗത്തിൽ എത്രത്തോളം പെട്ടെന്ന് ഇത് ചെയ്യാനാകുമെന്ന് താങ്കൾക്കൊന്ന് പറയാമോ ഞാന് എല്ലാ ആവശ്യമായ ഡോക്യുമെൻറ്റുകളും തയ്യാറാക്കാനായി തയ്യാറാണ് എൻ്റെ പഴയ പാസ്പോർട്ട് ഐ ഡി ഫോട്ടോ എന്നിവ ഫുള്ളും എൻ്റെ പക്കൽ റെഡിയാണ് യാത്ര അടുത്ത തിങ്കളാഴ്ചയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനാണ് ഈയാഴ്ച ഇനി വളരെ സമയം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നാളെത്തന്നെ എനിക്ക് നിങ്ങളുടെ ഓഫീസില് വരാൻ സാധിക്കുമോ നാളെ നാളെ തിങ്കളാഴ്ച എനിക്ക് നിങ്ങളുടെ ഓഫീസിലെത്തിയിട്ട് ഒരു രാവിലെ പത്ത് മണിയൊക്കെയാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓഫീസിലെത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങള് ചെയ്യുവാനുള്ള എനിക്ക് സമയം കിട്ടുമോ അതുപോലെ അപേക്ഷിക്കേണ്ട ഫോമുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ കരുതേണ്ടതെന്ന് എനിക്ക് മുന്കൂട്ടി എൻ്റെ വാട്സ്ആപ്പിൽ അയക്കാമോ സഹായം ലഭിച്ചാൽ വളരെ നന്നാകും എൻ്റെ യാത്രാകാര്യങ്ങൾ ക്ലിയറായി നടക്കുന്നതിന് എനിക്ക് പാസ്പോര്ട്ട് അടിയന്തരമായിട്ട് പുതുക്കേണ്ടതുണ്ട് താങ്കളുടെ എല്ലാ സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യൂ